പാട്ടിലേക്ക് സാധാരണ യായിട്ട് ഡൈനാമിക്സ് കൊണ്ട് വരുന്നത് ആ നമ്മള് അബ്ഡോമിനൽ എയറ് ന എക്സർസൈസൊക്കെ നമ്മള് നല്ലോണം ചെയ്യണം ആ അപ്പോൾ നമുക്ക് നല്ല ഡൈ ഡൈനാമിക്സ് കൊണ്ട് വരാൻ പറ്റും ആ പിന്ന അത്പോലെ തന്നെ നമ്മള് ഓൺ വോയിസും ഹെഡ് വോയിസും ആ ഒരുമിച്ച് യൂസ് ചെയ്ത് പാട്ട് പാടുമ്പഴ് ഇന്നലെ ഡൈനാമിക്സ് വരും ആ പിന്നെ നമുക്ക് കംഫോർട്ടബളായിട്ടുള്ള സ്രുതിയായിരിക്കണം നമ്മള് തിരഞ്ഞെടുക്കേണ്ടത് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പാടി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ആ പാട്ടിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും അപ്പം അതിനകത്ത് ഡൈനാമിക്സ് വേണ്ട്ന്ന് വേണ്ട ചില പ ചിലതരം പാട്ടുകളുണ്ട് അതിനും മാത്രം നമ്മളങ്ങനെ ഒരുപാട് ഡൈനാമിക്സ് കൊടുത്ത് പാടുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ നമ്മള് ഒരുപാട് ഡൈനാമിക്സ് ഉള്ള ചില പാട്ടുകള് പാടുന്ന സമയത്ത് നമ്മള് നല്ല ഉറച്ച് നല്ല സ്ട്രെസ്സ് സ്ട്രെസ്സില്ലാതെ നമ്മള് നല്ല ഹെഡ് വോയിസും നമ്മുടെ ഓൺ വോയിസും യൂസ് ചെയ്തിട്ട് നല്ല ഫുൾ ത്രോല് നമ്മള് ഹൈ പിച്ചില് നന്നായിട്ട് പാടാനായിട്ട് ശ്രമിക്കണം